ആ ഹലോ ആ അതെ അതെ പറയൂ ആ ഓക്കെ അത് ബാറ്ററിയുടെ കംപ്ലൈൻറ് ആണത് ലൈക്ക് കുറേ ലൈക്ക് കുറേ നാളായില്ലേ ഈ ബാറ്ററി യൂസ് ചെയ്യാറായിട്ട് എത്ര നാളായി ഫോൺ യൂസ് ചെയ്യുന്നു ആണോ അപ്പോൾ അതിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ലൈക്ക് പെട്ടെന്ന് ചാർജ് ബാറ്ററി ഡെഡ് ആവുന്നതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ബാറ്ററിയുടെ പെട്ടെന്ന് കംപ്ലൈൻറ് ആവും അപ്പം അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ശരിയാക്കാം അപ്പോൾ പെട്ടെന്ന് ഷോപ്പിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മാറ്റാം അല്ലെങ്കിൽ വേറെ ഫോൺ എടുക്കാം ഇപ്പോൾ ഏത് മോഡൽ ഫോണിൻ്റെ

ആ ബാറ്ററിക്ക് ഏകദേശം ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവും അപ്പോൾ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ അതെ ഡിസ്കൗണ്ട് ലൈക്ക് ഒരു തൗസൻഡ് ആ ഡിസ്കൗണ്ട് ഇപ്പോൾ അങ്ങനെ കാരണം ഇപ്പോൾ ഭയങ്കര സീസൺ ആണല്ലോ അപ്പം ഏറ്റവും കുറച്ചിട്ടാണ് ഞങ്ങൾ തരുന്നത് പ്ലസ് ബാറ്ററിയുടെ വിലയും കൂടിയുണ്ട് ഞങ്ങൾ എടുത്തിട്ട് പിന്നെ അത് ശകലം കൂടി ചെയ്യണം അപ്പോൾ പിന്നെ വേറെ ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓൾറെഡി പുറത്ത് വേറെ ഷോപ്പിലൊക്കെ രണ്ടായിരമാണ് ഞങ്ങൾ ഇത് ആയിരത്തിയഞ്ഞൂറിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനിയും കുറയ്ക്കുമ്പോൾ അത് ലൈക്ക് ഞങ്ങൾക്ക് ഒരിത് ഉണ്ടാവില്ല ആ അതെ അതെ അതെ അതെ അതെ ആ അതൊരു മൂന്ന് മാസത്തെ ഗ്യാരൻറി ഉണ്ടാവും എന്തായാലും മൂന്ന് വർഷം മൂന്ന് വർഷം

ബാറ്ററിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് മുൻപുണ്ടായ ബാറ്ററി തന്നെയാണ് സോ പെട്ടെന്ന് ഫാസ്റ്റ് ചാർജിങ്ങ് ആണ് റെഡ്മിയുടെ പോലെ ഫാസ്റ്റ് ചാർജിങ്ങ് ആണ് ലൈക്ക് വൺ അവർ മതി വൺ അവർ വേണ്ട അതിനേക്കാൾ മുമ്പ് ഫുൾ ചാർജ് ആവും പിന്നെ ചാർജ് പെട്ടെന്ന് തീരില്ല ലൈക്ക് പിന്നെയും ഡാറ്റ മൊബൈൽ ഡാറ്റ ഓൺ ആക്കുമ്പോൾ കുറച്ച് കുറയാൻ ചാൻസസ് ചാൻസസ് ഉണ്ട് പെട്ടെന്ന് ഹീറ്റ് ആവുവോ ഒക്കെ ആവുമ്പോൾ ലൈക്ക് ബാറ്ററി കുറയും നമുക്കറിയാമല്ലോ സാധാരണ ഫോണിൽ കുറയുന്നത് പോലെ ലൈക്ക് ക്യാമറ പെട്ടെന്ന് യൂസ് ചെയ്യുമ്പോഴും നെറ്റ് ഓൺ ആക്കി ഇടുമ്പോളൊക്കെ ബാറ്ററി കുറയും പക്ഷേ ഏകദേശം അത്യാവശ്യം ലൈഫ്സ്പാൻ ഉള്ളൊരു ബാറ്ററി തന്നെയാണ് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല നല്ലൊരു നല്ല ബാറ്ററി തന്നെയാണ് നിങ്ങൾ ഇടുന്നത് പിന്നെ പേടിക്കാനൊന്നുമില്ല കുറച്ച് മുൻപുള്ള ബാറ്ററി പോലെ തന്നെയാണ് വേറെ നമ്മൾ ഒരു പുതിയ ബാറ്ററി ഇടുന്നു എന്നേ ഉള്ളൂ വേറെ ഫീച്ചേഴ്സ് തരേണ്ടി ഇല്ല മുൻപ് ഉണ്ടായ പുതിയ ഫോൺ പോലെ തന്നെയിരിക്കും ഓ അല്ലല്ല റെഡ്മി ഇലവൻ മോഡൽ മോഡൽ തന്നെയാണ് ഞങ്ങൾ ഇടുന്നത് വേറെ ബാറ്ററീസ് അല്ല ഇടുന്നത് അങ്ങനെ വന്നാൽ ഫോണിന് കംപ്ലൈൻറ് ആണ് വേറെ ഫോണിൻ്റെ ബാറ്റ്റീസിന് ഭയങ്കര കംപ്ലൈൻറ് വരും അപ്പ അതുകൊണ്ട് ഞങ്ങൾ സെയിം ഫോണിൻ്റെ ബാറ്ററി തന്നെയാണ് ഇടുന്നത് ഉം ഉം ആ അത് ഉം ഉം ആ അത് എന്തായാലും അതായിരിക്കും കാരണം മുൻപ് ഉണ്ടായ ബാറ്ററി പ്രശ്നമുള്ള ബാറ്ററിയുടെ എല്ലാ മോഡൽസും അവർ ബാൻ ചെയ്തിരിക്കുവാണിപ്പോൾ അതുകൊണ്ട് അവർ പുതിയ ഇതാണ് ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ അപ്പം അതുകൊണ്ടാണ് എല്ലാ ഷോപ്പിലും ഉണ്ടാവുക ഈ ഷോപ്പിലും അത് തന്നെയാണ് ആ ഓക്കെ ഓക്കെ